ഞങ്ങളിവിടെ ഞങ്ങളുടെ ഫൂമിയിൽ കൃഷി ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങളാദ്യം നെല്ല് ഇവി എള്ള് ഇതെല്ലാ കാര്യങ്ങളും ഞങ്ങൾ കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു ഉഴുന്ന് ഉച്ചയായാലും ഞങ്ങൾ അതിനു വളങ്ങൾ ഇട്ടായാലും എല്ലാം കൃഷി ചെയ്തിട്ടുണ്ടായിരുന്നു അന്നും ഞങ്ങൾ ഒരുപാട് മരുന്നുകളെല്ലാം അടിച്ചും ഇത് സ്പ്രെ അടിച്ചു എല്ലാമായിരുന്നു പിന്നെ കൊത്തിയും ബെ ബെ ബെള്ളം കോരിയും കൃഷി ചെയ്തു കൊണ്ടിരുന്നതായിരുന്നു ഞങ്ങൾ ഇഷ്ടം പോലെ പയറും വെ വെണ്ടക്ക വഴുതനങ്ങ മുളക് തക്കാളി പച്ചമുളക് പടവലങ്ങ കുമ്പളങ്ങ മത്തങ്ങ ഇതെല്ലാം ഇഷ്ടം പോലെ ഞങ്ങൾ കൃഷി ചെയ്ത് എടുത്തത് എല്ലാം നാടൻ പച്ചക്കറി എല്ലാം ഇഷ്ടംപോലെ പച്ചകറികൾ ഉണ്ടായിരുന്നു തക്കാളിക്ക തന്നെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇതെല്ലാം ഞങ്ങൾ കൃഷി ചെയ്തു ചെയ്തു വെള്ളവും കോരി വളമിട്ട് ചാണകവും ഇട്ട് ആട്ടുംകാട്ടവും ഇട്ട് അപ്പോൾ പുറത്തോട്ടൂ പച്ചക്കറി ഒന്നും കൊടുക്കത്തില്ല ഞങ്ങൾ കൃഷി ചെയ്തു ഞങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഞങ്ങളുടെ ഇവിടെ വീട്ടിൽ കോവയ്ക്ക പടവലങ്ങ ഇവ എല്ലാ ഓമയ്ക്ക ഈ കൃഷി ഇതെല്ലാ സാധനങ്ങളും ഞങ്ങൾക്കുണ്ട് മൺവെട്ടിക്ക് കിളച്ചും പോച്ച കയറുമ്പോൾ മൺവെട്ടിക്ക് കിളച്ചും എല്ലാം ഇഷ്ടംപോലെ സാധനങ്ങൾ ഞങ്ങൾ പിച്ചീട്ടുണ്ട് കുന്താലിക്കും കുന്താലിക്ക് കിളച്ചും മറിച്ചും ചാണകം ഇട്ടും ഞങ്ങൾ ഒരുപാട് കൃഷികൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അതെല്ലാം നല്ല നാടൻ പച്ചക്കറി ആയിരുന്നു ഇപ്പോഴും ഞങ്ങൾ പച്ചക്കറി ഇപ്പോഴും ഞങ്ങളുടെ വീട്ടുകളിൽ നിന്നാണ് ഞങ്ങൾ പച്ചക്കറികൾ ഉപയോഗിക്കുന്നത് ആ ഒരു നാടൻ പച്ചക്കറി ഇപ്പോൾ വിഷം ചേർന്ന പച്ചക്കറികളാണ് പുറത്തു നിന്ന് വരുന്നത് അതു നമ്മൾ ഉപയോഗിച്ചിനേൽ നമ്മൾ കറി വേപ്പില തൊട്ട് പച്ചമുളക് തൊട്ട് കുരുമുളക് എല്ലാം കൃഷി ചെയ്യുന്നുണ്ട് മാവ് ചക്ക ഇതെല്ലാം ഞങ്ങൾ വീട്ടുകളിൽ കൃഷി ചെയ്ത് ഞങ്ങൾ പിടിപ്പിക്കുന്നുണ്ട് അതു കൊണ്ട് ചാമ്പ എല്ലാം ഇപ്പോൾ ഒരു സാധനങ്ങളും നമ്മൾ ഉള്ള സ്ഥലത്തു തന്നെ നമ്മൾ ഇതെല്ലാം കൃഷി ചെയ്തു നമ്മളെടുക്കുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ വീട്ടുകളിൽ അപ്പോൾ അതുകൊണ്ട് യാതൊരു അസുഖങ്ങളോ അങ്ങനെയുള്ള ഇതൊന്നും ഇല്ല നമുക്ക് എപ്പോൾ വേണമെങ്കിലും സാധനങ്ങളെടുത്തു നമുക്ക് കൈകാര്യങ്ങൾ ചെയ്യാം അതുകൊണ്ട് ഇനിയും ഞങ്ങൾ ഇതുപോലെ കൃഷി ചെയ്തു അദ്ധ്വാനിച്ചു ഞങ്ങൾ വാഴയുണ്ട് വാഴയും കുലയും ഏത്തക്ക ഇതെല്ലാ കാര്യങ്ങളും ഞങ്ങൾ തന്നെയാണ് കൃഷി ചെയ്തെടുക്കുന്നത് അതുകൊണ്ട് ഇപ്പോഴും ഒരുപാട് പച്ചക്കറി ഇപ്പോഴും കോവയ്ക്ക തന്നെ ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട് അതുപോലെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വിള പിടിച്ചു പിടിപ്പിക്കുകയാണ്